ഹോട്ടൽ കാലിഫോർണിയ അല്ലേ ആ അതെ ഞങ്ങളിവിടെ നിന്ന് പാലക്കാട് നിന്ന് ടൗൺ ഹാളിൽ നിന്ന് വിളിക്കുകയാണ് ഇപ്പോൾ ഞങ്ങളവിടെ ഇവിടെ ഒരു മാനേജ്മെന്റിൻ്റെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഈ വരുന്ന ബുധനാഴ്ച അപ്പോൾ നമ്മൾക്കിവിടൊരു നൂറ് ആളുകൾ കൂടുന്നുണ്ട് അപ്പോൾ അവർക്കുള്ളൊരു ഭക്ഷണം ഓർഡർ ചെയ്യണം അപ്പോൾ ഈ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് വച്ചാൽ രാവിലത്തെ ടിഫ്ഫിൻ ഉച്ചക്കത്തെ ലഞ്ച് പിന്നെ വൈകുന്നേരത്തെ ചായ അതിനുള്ള പലഹാരം അപ്പോൾ ഇത്രമാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളു ഡെയ്ലി ഇങ്ങനെതന്നെ ആയിരിക്കണം ഒരു രണ്ട് ദിവസത്തെ പരിപാടിയാണ് അപ്പോൾ രണ്ട് ദിവസത്തേക്ക് വേണ്ടീട്ട് ഇത്രയും കാര്യങ്ങള് നമുക്ക് ഫുഡൊന്ന് ഓഡർ ചെയ്യണം രാവിലേക്ക് ഇഡ്ഡലി മതിയാവും ഇഡ്ഡലിയും പിന്നെ ചട്ട്നി സാമ്പാർ ചമ്മന്തി ഇഡ്ഡ്ലിക്കിത് മതിയാവും ഒരാൾക്ക് ഒരു നാല് ഇഡ്ഡലി വെച്ചിട്ട് ഒരു നൂറാൾക്കുള്ളത് ഉണ്ടാക്കണം പിന്നെ ലഞ്ചെന്നു പറയുന്നത് ആദ്യത്തെ ദിവസം സദ്യ മതി സദ്യയും സാമ്പാർ ഇലക്കറികൾ അത്യാവശ്യം കുറച്ച് കറികളും മോര് രസം പപ്പടം ഒരു പായസം വേണം അത് അടപ്രഥമനായിക്കോട്ടെ അത്രയും കാര്യങ്ങള് മതി രണ്ടാമത്തെ ദിവസം നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ രാവിലെ നമുക്ക് പൂരിയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കൊടുക്കേണ്ടത് പൂരിയും ഉരുളക്കിഴങ്ങ് മസാലയും മതി അത് ഓഡർ ചെയ്യാം ഒരാൾക്ക് മൂന്നെണ്ണം വെച്ചിട്ട് നൂറാളുകൾക്കുള്ളത് തന്നെയാണ് രണ്ടാമത്തെ ദിവസം ഉച്ചയ്ക്ക് ബിരിയാണി ആണ് നമ്മൾ ചോറ് നോക്കുന്നത് ബിരിയാണി നിങ്ങളുടെ അവിടെ ഉണ്ടാവില്ലേ ഉണ്ടല്ലോ അല്ലേ അപ്പോൾ ഒരു ചിക്കൻ ബിരിയാണി ആണ് ചിക്കൻ ബിരിയാണി നൂറാൾക്കുള്ള ചിക്കൻ ബിരിയാണി സാലഡ് അതിനുള്ള ഗ്രേവി സ്പെഷ്യലായിട്ടുണ്ടാവണം അച്ചാറും ഉണ്ടാവണം പിന്നെ രണ്ട് ദിവസം ചായ ഉണ്ടാവണം നൂറാൾക്ക് വീതവുള്ള ചായയും ഒരു ദിവസം പഴം പൊരിയാണെങ്കിൽ അടുത്ത ദിവസം സമൂസ എന്നുള്ള രീതിയില് അയച്ച് വിടണം ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങള് ഓർഡർ ചെയ്യുകയാണ് കാശിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം ഞങ്ങളവിടെ വന്ന് തന്നോളും നിങ്ങളാരെയാണെന്ന് വെച്ചാൽ ഇങ്ങോട്ട് വിട്ടാൽ മതി അപ്പോൾ ഇത്രയേറെ നമ്മൾ ഓർഡർ കൊടുക്കുകയാണ് അഡ്വാൻസായിട്ട് എന്തെങ്കിലും വേണോ ആ വേണ്ട അല്ലേ ആ ഓക്കെ അപ്പോൾ നിങ്ങൾ ആ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങള് കോണ്ടാക്ട് ചെയ്താൽ മതി ഈ നമ്പറിൽ ഞങ്ങളെ വിളിച്ചാൽ അവൈലബിളായിരിക്കും ആ ഓക്കെ താങ്ക് യു